എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാന്നു ചോദിച്ചിട്ടുണ്ടെങ്കില് കളർ പെൻസിലാണ് കളർ പെൻസിൽ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് നല്ലൊരു ഉ ഉപകാരം ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കാരണം എന്താന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ പെൻസിലുകൊണ്ട് അതായത് നമുക്ക് ചെറുപ്പത്തിൽ തൊട്ടേ നമുക്ക് ആദ്യമൊക്കെ അതായത് നമുക്ക് ചിത്രം അതായത് നമ്മൾ ആദ്യമൊക്കെ ചിത്രങ്ങളില് ഒന്നാം ക്ലാസ്സില് രണ്ടാം ക്ലാസ്സില് ഒക്കെ പഠിക്കുമ്പോൾ ചിത്രം തന്നിട്ടതില് അതായത് കളറെയ്യാനൊക്കെ പറയും അപ്പം നമ്മള് കൂടുതലായിട്ടും കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്നത് കളർ പെൻസില് പോലുള്ള സാധനങ്ങളൊക്കെയായിരിക്കും അപ്പമെന്നു വെച്ചിട്ടുണ്ടെങ്കില് ഈ കളർ അതായത് ഒരു ചിത്രത്തില് കളറൊക്കെ അടിക്കുമ്പോൾ കുട്ടികളുടെ മൈൻഡ് ഒക്കെ നല്ലൊരു അതായത് ആ കളറടിച്ചിട്ട് ഭംഗിയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് പിന്നേയും പിന്നേയും വരാക്കാനുള്ളൊരു ഇതൊക്കെ തോന്നും അപ്പം അതെന്നെ മൈനായിട്ട് നമുക്ക് പറയുക അതിൻ്റെ അഡ്വാൻറ്റേജെന്നെയാണെന്നു പറയാം പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കില് വലുതാവുമ്പൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ പോകുമ്പം ഇപ്പോ കളറടിച്ചിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കളർ പെൻസിൽ പലതരത്തിലുള്ളത് കിട്ടുന്നുണ്ട് അതായത് ലൈറ്റായിട്ടുള്ള കളറ് ഡാർക്കായിട്ടുള്ള കളറ് എല്ലാ കളറും അവൈലബിളാണ് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് ചായയൊക്കെ പൂശുമ്പം നമുക്കത് ഭയങ്കരൊരു ഭംഗിയും തോന്നും അതുപോലെത്തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും പരുപാടിക്കൊക്കെയാണെങ്കിൽ അവർക്കുമൊരു ഇൻറ്ററസ്റ്റ് നമ്മള് നല്ലോണം കളറടിച്ചാൽ നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടാനും സാധ്യത കൂടുതലാണ്